ഡിജിറ്റല് ആര്ട്ട് എന്നു പറയുമ്പോള് നമ്മളൊരു ഐ പാഡിലോ അല്ലെങ്കിലൊരു കംപ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഒക്കെ ചെയ്യുന്ന ഒരു കല തന്നെയാണ് ഡിജിറ്റൽ ആര്ട്ട് സാധാരണ ഗതിയില് മനുഷ്യ നിര്മ്മിത കല ആയിട്ടുള്ള ഇപ്പം നമ്മൾ പെയിന്റിങ്ങായിക്കോട്ടെ ഏതുതരം കലാരൂപം ആയിക്കോട്ടെ അതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കളറും ബ്രഷും ഒക്കെയാണെങ്കില് ഇതിൽ നമ്മൾ ഒരു സ്മാര്ട്ട് പെന്നോ മൗസോ ഒക്കേയിരിക്കും ഉപയോഗിക്കുന്നതിനുള്ള വ്യത്യാസം മാത്രമാണ് സാധാരണ ഗതിയിൽ പറയാനുള്ളത് മനുഷ്യ നിർമ്മിത കലയോളം ബുദ്ധിമുട്ട് അതിനില്ല എന്നു വേണമെങ്കിൽ പറയാം എന്നാൽ പോലും ഒരു മനുഷ്യന്റെ എന്താ പറയുക കഴിവു തന്നെയാണ് ഡിജിറ്റൽ ആർട്ടിലും കണ്ടു വരുന്നത് അതായത് ഡിജിറ്റൽ ആയിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒരു കലാസൃഷ്ടി ഉണ്ടാക്കണമെങ്കിൽ അതിനു നല്ല രീതിയിൽ തന്നെ കലാബോധം വേണം അതുപോലെ തന്നെ നല്ല നല്ല ഒരു ദീർഘ വീക്ഷണവും ചിന്തയും ഒരുപാട് ഐഡിയക ഐഡിയാസും ഒക്കെ വേണം അതല്ലാതെ അതു മനുഷ്യ നിർമ്മിതമായിട്ടാണെങ്കിലും ഡിജിറ്റലായിട്ടാണെങ്കിലും നമുക്കൊരു സൃഷ്ടി ഉണ്ടാക്കാൻ പറ്റത്തില്ല അതുകൊണ്ടു തന്നെ ഇതു തമ്മില് വലിയ വ്യത്യാസങ്ങൾ കണ്ടു വരുന്നില്ല കാണുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ നല്ലതാണോ എന്നു ചോദിച്ചാൽ എന്തുകൊണ്ടും ഇപ്പോഴത്തെ യുഗത്തിൽ പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറൈസ്ഡ് ആകുന്ന ഡിജിറ്റലായിട്ടുള്ള ഒരു സമയത്ത് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വളരേ അധികം എന്താ പറയുക പ്രചരിക്കുന്ന ഈ സമയത്ത് നമ്മൾ നാടോടുമ്പം നടുവേ ഓടണം എന്നു പറയുന്നതു പോലെ തന്നെ നമ്മളുടെ കഴിവുകളും കലാസൃഷ്ടികളിലും ഈ കാലത്തിനൊത്ത് അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണ് അതിനിപ്പം നമുക്ക് പുരാതനമായിട്ടുള്ള രീതിയിൽ തന്നെ പറ്റുകയുള്ളൂ എന്നു വാശി പിടിക്കാൻ ഒന്നും പറ്റത്തില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒട്ടുമേ നടക്കത്തില്ല ഇന്റര്നെറ്റും ഒക്കെ ഉപയോഗിക്കുന്ന ഈ സമയത്ത് അതു നടക്കുന്ന കാര്യമല്ല അതുകൊണ്ടു തന്നെ ഡിജിറ്റൽ ആര്ട്ടിന് അതിന്റേതായ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് അതിന് നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയകൾ വേണം അതില്ലാതെ പറ്റില്ല അപ്പോൾ നല്ലതാണോ എന്നുള്ളതൊരു എന്താ പറയുക അങ്ങനെയൊരു കൃത്യമായ അഭിപ്രായം പറയാന് പറ്റുന്ന ഒരു കാര്യമല്ല എന്നാൽ പോലും മനുഷ്യ നിര്മ്മിത കല എന്നു പറയുമ്പോൾ അതിന് അതിന്റ്റേതായ ഭംഗിയും അതേപോലൊരു തനിമയും കമ്പ്യൂട്ടറിൽ നമുക്ക് ഒരേ പോലത്തെ അല്ലെങ്കില് ഡിജിറ്റൽ ആര്ട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് വീണ്ടും അതേപോലൊരു കോപ്പിയുണ്ടാക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കാരണം അതിനകത്തു വേണ്ട കാര്യങ്ങളതിൽ ഒരു ഫോണിലോ ഒരു സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ ഒരു ഐ പോഡായിക്കോട്ടെ അതിൽ കാണും പക്ഷെ മനുഷ്യ നിര്മ്മിതമായിട്ട് അതു നമ്മൾ കൈകൊണ്ടു വരയ്ക്കുന്നൊരു ചിത്രത്തിൽ അതേപോലെ തന്നെ പകർത്താൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതിപ്പോൾ വരച്ച ആള്ക്കു തന്നെ അതു വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും അപ്പങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ ഒരു തനിമ നമ്മൾ മനുഷ്യ നിർമ്മിത കലയ്ക്ക് തന്നെയാണ് കൂടുതലും ഉള്ളത്